ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പ്രധാനമായിട്ടും നമ്മൾ നേരിടുന്ന പല രീതീയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളുമൊക്കെ ഉണ്ട് കാരണം കോഴിക്കോട് നഗരത്തിൽ തന്നെ മലിനജലം നല്ല രീതിയിൽ ഒഴുകി വരുന്നുണ്ട് ഓടയിൽ നിന്നുള്ള വെള്ളവും കാര്യങ്ങളുമൊക്കെ നല്ല രീതിയിൽ മാലിന്യമാകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് അതായത് അതൊക്കെ അവിടെ കെട്ടി നിൽക്കുക പിന്നെ പ്ലാസ്റ്റിക് ഉപയോഗ മാലിന്യങ്ങൾ പല രീതിലുള്ള കാര്യങ്ങളുമൊക്കെ നമ്മുടെ ടൗണിലിങ്ങനെ കെട്ടിനിന്ന് കഴിയുമ്പോൾ പല രീതിലുള്ള അസുഖങ്ങളൊക്കെ വരാൻ കാരണം ഈ ടൗണിൽ തന്നെയാണ് ഇപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നമ്മൾ മാറ്റി എടുക്കേണ്ട ഒന്ന് തന്നെയാണ് ഇത് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വരുന്ന പല രീതിലുള്ള മാലിന്യങ്ങളുണ്ട് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വരുന്ന സൂചിയും കാര്യങ്ങളുമൊക്കെ നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിലൊന്ന് ഇട്ട് ഇതാക്കാറുണ്ട് ഇത് നേരെ കൊണ്ട് തള്ളുന്നത് പല രീതിലുള്ള പുഴകളിലേക്കൊക്കെയാണ് കൊണ്ട് തള്ളുന്നത് അവിടുന്ന് വരുന്ന പഞ്ഞിയൊക്കെയാണ് ഈ പാമ്പേഴ്സിലും അങ്ങനത്തെ അതിലൊക്കെ വയ്ക്കുന്നത് അപ്പോൾ പല രീതിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ അതിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാകും ഇപ്പോൾ രോഗങ്ങളൊക്കെ വരാൻ ഭയങ്കര എളുപ്പമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ